എനിക്ക് കുറച്ച് വെജിറ്റബ്ൾസ് വേണമായിരുന്നു മാര്യേജ് ഫങ്ക്ഷന് വേണ്ടി ആയിരുന്നു അത് ഹോൾസെയിലില് എങ്ങനെയാണ് കൊടുക്കുക നിങ്ങള് റേറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഈ സാമ്പാർ കൂട്ടിനൊക്കെ ഞങ്ങൾക്ക് ഒരു പത്തിരുപത് കെ ജി വേണ്ടിവരും മാര്യേജ് ഫങ്ക്ഷന് ആയതുകൊണ്ട് ആയിരം ആയിരത്തഞ്ഞൂറ് പേര് പങ്കെടുക്കുന്നുണ്ട് സാമ്പാർ സാമ്പാർകൂട്ട് വേണം പിന്നെ തോരൻ വെക്കുന്നത് കുറച്ച് ഐറ്റംസ് വേണം ആണോ കിലോയ്ക്ക് ഇരുപതാണല്ലേ വേറെ ഈ തക്കാളിയും ഉള്ളിയും അതൊക്കെ എങ്ങനെയാണ് വരുന്നത് റേറ്റ്

ആണോ ഈ പുളിയുള്ള തക്കാളിയും അങ്ങനെ സൈസ് വേറെയില്ലേ ഉള്ളിക്കോ അപ്പം ഈ മല്ലി ചെപ്പും പുതിന ചെപ്പും അങ്ങനെത്തെ ചെപ്പുമൊക്കെ അപ്പം ഞങ്ങൾക്ക് ഇത്ര പേര് ഇപ്പോൾ ഞങ്ങളെങ്ങനെ സാധനം ഇത്ര പേർക്കുള്ളത് പറഞ്ഞിട്ട് എടുക്കാൻ പറ്റില്ലേ അപ്പോൾ ഞങ്ങൾക്ക് ആയിരം പേർക്കുള്ള സാമ്പാർ കൂട്ടും തോരൻ്റെ ഇതൊക്കെയേ വേണ്ടത് ഐറ്റംസാണ് വേണ്ടത്